പാലക്കാട് പാലക്കാട് എന്ന് പറഞ്ഞ ജില്ലയിൽ പ്രധാന സാംസ്കാരിക സാമൂഹിക പരമ്പര്യങ്ങൾ എന്ന് വെച്ചാൽ അവർ ആചരിക്കുന്ന നാടൻ കല കലയാണ് അതെന്താണ് വെച്ചാൽ ദേശത്ത് കളി എന്നും മലമ കളി എന്നും അറിയപെടുന്ന കണ്യാർ കളി ശിവരാത്രി അങ്ങനത്തെ ഉള്ള പല കളികളും ദിനങ്ങളുമാണ് പാലക്കാടുകാർ മെയിനായിട്ട് ആഘോഷിക്കുന്നത് ഇവിടെ ഇരുപത്തെട്ട് ശതമാനം ഇസ്ലാംകാരാണ് പിന്നെ പാലക്കാടെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷവും ഹിന്ദു മതം ആചരിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന വ്യക്തികളാണ് ഇവിടെ ക്രിസ്തു മതവും ഉണ്ട് ഇവിടെ പാലക്കാട് ഭൂരിപക്ഷവും നായർ സമുദായം ആചരിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരു വിദേശികൾ ഇവിടെ വന്നാൽ ഇവിടുത്തെ നാട്ടുകാർ വളരെ അധികം ബഹുമാനത്തോടെ അവരെ വരവേറ്റു അവരുടെ കല കാണിക്കുകയും അവരുടെ പ്രത്യേക ദിനങ്ങൾ ആചരിക്കുന്നു അതിൻറെ വിശേഷതകളൊക്കെ പറഞ്ഞ് അവരെ വളരെ ബഹുമാനത്തോടേയാണ് ഇവിടെ വരവേൽക്കുന്നത്